ഞാൻ നടത്തിയ ഒരു അവിസ്മരണീയമായ മലകയറ്റ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കുരുമ്പലക്കോട്ടയിൽ പോയത് തന്നെയാണ് നമ്മൾ കുറേ നടക്കണം അതായത് ഫുൾ മലകളാണ് മല ഫുൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുകയുള്ളൂ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ ഞാൻ മര്യാദയ്ക്ക് സ്റ്റേയറിൽ പോലും കയറില്ല സ്റ്റേയറിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് തല കറങ്ങും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനേ പോകുമ്പോൾ എനിക്ക് ആദ്യമൊക്കേ ഭയകര പേടിയായിരുന്നു ഇങ്ങനേ കയറി പോകുമ്പോൾ അഥവാ സ്ലിപ് ആയിട്ടുണ്ടേ താഴേ കിടക്കുമല്ലോയെന്നുള്ളൊരു പേടി എനിക്ക് അ എപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അങ്ങ് കയറുമ്പോൾ കുറച്ച് ധൈര്യം വരും ചെറിയ ചെറിയ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ചെറിയ ഒരു വഴിപോലെ ഉണ്ടാകും ഒരാൾക്ക് കയറിപോയത് പക്ഷേ ആദ്യമൊക്കേ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക് പൊതുവേ പേടിയാണ് അങ്ങനെ വെച്ചിട്ടുണ്ടേൽ അത് കയറിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് എൻറ്റെ കുറച്ച് പേടി കാര്യങ്ങൾ ഒക്കേ എൻറ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നേ എൻറ്റെ പേടി കുറച്ചെങ്കിലും മറികടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സ്ഥലത്ത് പോയ പോയതിൽ പിന്നെയാണ് എനിക്ക് പേടി കുറച്ച് കുറഞ്ഞത്